മൊബൈൽ ഷോപ്പ് അല്ലെ ആ ഞാൻ ഫോൺ സർവീസ് തരാൻ വേണ്ടി സർവീസിന് ആയിട്ട് വിളിച്ചത് ആണെ ഫോണ് രണ്ട് ദിവസം മുമ്പ് താഴെ വീണിരുന്നു ആ അപ്പം അത് ഡിസ്പ്ലേ അടിച്ച് പോയി ജസ്റ്റ് ഇങ്ങനെ വൈറ്റ് ലൈൻസ് ഒക്ക കാണുവാണ് ആ ഫുൾ നമ്മക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിൽ ആയി വിവോ ആയിരുന്നെ

ആ വൺ ഇയറ് കഴിഞ്ഞു അത് ആ ആ അതെ അതെ അപ്ഡേറ്റ് ചെയ്തപ്പം ചെറിയ പ്രോബ്ലെംസ് ഒക്കെ കണ്ടിരുന്നു

ആ ഫുള്ള് വൈറ്റ് കളർ ആയിട്ട് ഇങ്ങന നിക്കാ നമ്മക്ക് ഒന്ന് ഒര് ആപ്പ് യൂസ് ചെയ്യാൻ ഒന്നും കഴിയുന്നില്ല ആ ആ എത്ര ആവും മേഡം

ആ ഓക്കെ

ഏ ആ അത് കൊണ്ടത്തരാം ആ ഓക്കെ

വേറെ പ്രശ്നം ഒന്നും ഇല്ല നമ്മക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല

അപ്പം നാളെ കൊണ്ടത്തന്നാൽ അത് നാളെ കൊണ്ടത്തന്നാൽ എന്നത്തേക്കാണ് ഫോൺ കിട്ടുക

നാളെ ഷോപ്പ് ഓപ്പൺ ആണോ ആ അപ്പം നാളെ കൊണ്ടത്തരാം